ഞങ്ങളുടെ പാചകത്തിൽന്ന് പറയുമ്പോൾ ഔഷധസസ്യങ്ങള് ഉപയോഗിക്കുന്നത് നമ്മള് കുടിക്കാൻ വെക്കുന്ന വെള്ളത്തില് കരിന്തൊളസി അങ്ങനെയുള്ള കരിന്തൊളസി മറ്റെ മറ്റേ കരിങ്ങാലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മള് ഉപയോഗിക്കും പിന്നെ ഇഞ്ചി ഇഞ്ചി ഉപയോഗിച്ചിട്ട് വെള്ളം വെക്കും പിന്നെ മല്ലി മല്ലി ഉപയോഗിച്ചിട്ടും മല്ലി ഉപയോഗിച്ചിട്ടും വെള്ളം വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഔഷധങ്ങള് നമ്മള് ഉപയോഗിച്ച് പാചകത്തില് ഒക്കെ ചേർക്കുന്നത് പാചകത്തിലെന്ന് പറയുമ്പം പിന്നെ ചൂടുവെള്ളത്തിലും അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് ഇത് വെക്ക് പിന്നാ ഔഷധസസ്യങ്ങള് ഉപയോഗിക്കുന്നത് പിന്നെ കുട്ടികളുടെ പിന്നാ തലേല് ജലദോഷൊന്നും പിടിക്കാതിരിക്കാന് കഫക്കെട്ടില്ലാണ്ടിരിക്കാനും പനിക്കൂർക്കാന്നു പറഞ്ഞൊരു സംഭവുണ്ട് അത് നല്ലൊണം കുട്ടികൾക്ക് പിന്നാ ചട്ടിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിട്ട് അതില് കുട്ടിക്ക് അതിൻ്റെ നീരെടുത്ത് കൊടുത്താൽ അത് നല്ലതാണ് ഇതൊക്കെയാണ് ഔഷധസസ്യങ്ങളുടെ ഗുണങ്ങള്